അലക്സാണ്ടർ ചക്രവർത്തീനേ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു പിന്നീട് അദ്ദേഹം പല പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അടക്കി ഭരിക്കുക ഉണ്ടായി കുറെ രാജ്യങ്ങളങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണാധീ കാര്യത്തിൻ കീഴിൽ കൊണ്ട് വന്നു അങ്ങനെ ഒരു രീതീൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിക്കേം വേറെ രീതീൽ ദോഷവശങ്ങളുണ്ടാവേം ചെയ്തിട്ടുണ്ട് എന്നാലും നല്ലൊരു ഭരണാധികാരികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാവുന്നൊരു രാജാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി പിന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ ആകർഷിക്കുന്ന ഘടകംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ അങ്ങീകരിക്കാം ഇപ്പോൾ നമുക്കതൊന്നും ചെയ്യാമ്പറ്റില്ല എന്നാലും നമുക്കതക്കെ എന്താ കെ അങ്ങീകരിക്കാവുന്ന കാര്യങ്ങൾ ഇപ്പം നടക്കില്ലെങ്കിലും അതക്കെ നമുക്കെന്തുകൊണ്ട് ചെയ്യാം ചെയ്യാമ്പറ്റില്ലാന്നുള്ളൊരു ഇതൊക്കെ നമുക്ക് തോന്നണുണ്ട് അതക്കെ നമ്മുടെ അന്നത്തെ ഓരോ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളക്കെ നമുക്ക് ഇപ്പം ഇതിപ്പം അതൊന്നും നമുക്ക് കിട്ടണില്ല അപ്പം അതക്കെ നമുക്ക് കിട്ടീരുന്നെങ്കിൽ നല്ലതായിരുന്നു അതക്കെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്